ഭരണ ഭാഷ മലയാളമാണ് അതോടൊപ്പം തന്നെ മാതൃഭാഷയും മലയാളമാണ് നമ്മൾ ജനിക്കുമ്പോള് തന്നെ നമ്മൾ കേള്ക്കുന്ന ഒരു ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാര്ക്ക് പോലും എല്ലാ ഓഫീസുകളിലും പോകാനും അതോടൊപ്പം തന്നെ അവിടുത്തെ കാര്യങ്ങള് മനസ്സിലാക്കുവാനും ഒരോ ഫോമൊക്കെ കിട്ടിഴിഞ്ഞാല് അതെല്ലാം മലയാളത്തില് ആവുന്നതു കൊണ്ട് ആ കാര്യങ്ങള് പെട്ടെന്ന് പിന്നെ പൂരിപ്പിക്കുവാനുമൊക്കെ പരസഹായം കൂടാതെ ചെയ്യാന് പറ്റും എല്ലാ എല്ലാ നേരത്തെയൊക്കെ നമ്മൾക്ക് ഇംഗ്ലീഷിലോ മറ്റ് ഭാഷകളിലോ എഴുതിയിരുന്നത് കൊണ്ട് സാധാരണക്കാര്ക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ആ ഒരു ആവിശ്യമുണ്ടായിരുന്നു പക്ഷെ ഇപ്പഴ് നമ്മൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല ഭരണഭാഷ പിന്നെ മലയാളഭാഷ ആയതുകൊണ്ടും നമ്മുടെ ഈ അതോടൊപ്പം തന്നെ കുട്ടികളില് കുട്ടികള്ക്ക് ആയാലും മലയാളത്തോടും അതോടൊപ്പം തന്നെ മാതൃഭാഷയോടും അതോടൊപ്പം നമ്മുടെ സംസ്കാരവും നമ്മുടെ ഇതെല്ലാം നമ്മൾക്ക് അനുഭവിക്കാനുമൊക്കെ പിന്നെ മലയാള ഭാഷ ഒത്തിരിയേറെ ഉപകരിക്കുന്നുണ്ട് അപ്പഴ് അതുകൊണ്ട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൃത്യതയോടെ കാരണം മറ്റ് മലയാളം മാത്രമേ ഭാഷയായിട്ട് പഠിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം മറ്റ് വിഷയങ്ങളാണ് അതുകൊണ്ട് മലയാള ഭാഷയും പഠിച്ചെങ്കില് മാത്രമേ നമ്മുടെ സംസ്കാരം എന്താണെന്നും അത് പെറ്റമ്മയ്ക്ക് തുല്യമാണ് എന്നൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ അപ്പം അത്ര മാത്രം മാധുര്യമുള്ളതാണ് മലയാളിയെന്ന് പറയുന്നത് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടു കിടക്കുന്ന ഒന്നാണ് അതുകൊണ്ട് മലയാളം മലയാളത്തെ പിന്നെ കൂടുതൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആ ഭാഷ മറ്റുള്ള എല്ലാ വിഷയം പഠിക്കുമ്പോഴും ഒരു വിഷയം ഐഛികമായിട്ട് തന്നെ മലയാളം പഠിച്ച് അതിലൂടെ പ്രാവിണ്യം നേടുന്ന കുട്ടികള്ക്ക് നമ്മൾക്ക് കേരളത്തിൻ്റേതായാലും ഭാരതത്തിന്റെ ആയാലും സംസ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യതയോടെ മനസിലാക്കുവാനും നമ്മുടെ തനത് ആ അമ്മടെ ഉല്പത്തിയും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കുവാനും മലയാളഭാഷ ഒത്തിരി ഏറെ സ്വാധീനം വഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി കവിതകളും മറ്റ് കാര്യങ്ങളും ഇതെല്ലാം നമ്മൾക്ക് ഒന്ന് അയച്ച് ആസ്വദിക്കണമെങ്കില് തീര്ച്ചയായിട്ടും മലയാളത്തിൻ്റേതായ ആവിശ്യമുണ്ട് ഒത്തിരിയേറെ ക്ലാസ്സിക്കലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾക്ക് മലയാളത്തിലുണ്ട് ഇതെല്ലാം വായിച്ചു മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പൊരുള് മനസിലാക്കണമെങ്കില് തീര്ച്ചയായിട്ടും നമ്മക്ക് മലയാളം ആവിശ്യമാണ്